ഹലോ ഇത് സ്വിഗ്ഗിയുടെ ഓഫീസല്ലെ എൻ്റെ പേര് അരു എന്നാണെ ഞാൻ കുറച്ചു മുൻപ് ഫൊ വിളിച്ച് ഫുഡ് കുറച്ച് ഓർഡർ ചെയ്തായിരു ന്നു ആ കൂടെ കുറച്ച് ഫുഡ് മിസ്സായിപ്പോയി അത് തിരിച്ചിപ്പൊ രണ്ടാമത് വിളിച്ച് പറയാനാണ് ഞാൻ വിളിച്ചത് ഞാനാദ്യം ഓർഡർ ചെയ്ത കുറച്ച് ഫുഡുണ്ട് ആ ഫുഡിൻ്റെ കൂടെ ഇപ്പോൾ പറയുന്ന ഇപ്പോൾ പറയുന്ന ഫുഡും എനിക്ക് ഡെലിവർ ചെയ്യാനുള്ളതാണെ ആദ്യം ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ബിരിയാണിയും റൈസുമാണ് പറഞ്ഞത് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ലിസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു സ്വിഗ്ഗിയിൽ വിളിച്ച് ഓർഡർ ചെയ്തായിരുന്നു അവർ ഇത്രയും മിനിറ്റിനുള്ളിൽ കൊണ്ടുവന്നു തരാമെന്നാണ് എന്നോടു പറഞ്ഞത് ഇപ്പോൾ എനിക്ക് കുറച്ചു സാധനങ്ങൾ കൂടി ഡെലിവറി വേണം ആ കൂടി അതു തിരിച്ചു പറയാനാണ് ഞാൻ വിളിച്ചത് സാധനങ്ങളെന്നുവെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് ഡ്രിങ്ക് പോലത്തുള്ള കുറച്ച് സാധനങ്ങളെനിക്ക് വേണാമായിരുന്നു അപ്പോൾ അതൊക്കെ വിളിച്ച് രണ്ടാമതൊന്നു പറയാൻവേണ്ടിയാണ് ഇപ്പോൾ സ്വിഗ്ഗിക്കാരെ വിളിച്ചത് ഞാനാദ്യം ഓർഡർ ചെയ്തത് ബിരിയാണിയും റൈസും ചിക്കനുമാണ് ആ കൂടെ ഇപ്പോൾ ഡ്രിങ്കിനായിട്ട് എനിക്ക് കൊക്ക കോള പെപ്സി പിന്നെ എന്തൊക്കെയാണവിടെ വേറെ ഐറ്റംസ് ഉള്ളത് കൊക്ക കോളയും പെപ്സിയുടെയും ടു ലിറ്റർ ബോട്ടിലാണ് എനിക്കു വേണ്ടത് അങ്ങനെയുള്ള കുറച്ച് ഡ്രിങ്ക്സിനായി ഡ്രിങ്ക്സ് പിന്നെ സ്വിഗ്ഗിയുടെ ഫുഡ് ചിക്ക് കിങ് അതൊക്കെയാണ് എനിക്ക് വേണ്ടതാണ് പിന്നെ സ്വിഗ്ഗിയിൽ നിന്നു കിട്ടുന്ന ഫുഡ് നല്ല അടിപൊളി ഫുഡ്ഡാണ് നിങ്ങളുടെ ഡെലിവറി സൂപ്പറാണ് ഡെലിവറി ടൈം സൂപ്പറാണ് എല്ലാം നല്ലതാണ് സ്വിഗ്ഗിയുടെ ഫുഡ് ഒക്കെ സ്വിഗ്ഗിയെന്നു പറയുന്നതുതന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഡെലിവറി നമുക്ക് വിചാരിക്കുന്ന സമയത്ത് ഡെലിവറി കിട്ടും പിന്നെ ഇൻസ്റ്റാൾമെൻറ് കിട്ടും സ്വിഗ്ഗിയിൽ നിന്ന് ഇതൊക്കെ നല്ലതു തന്നെയാണ് എനിക്ക് കുറച്ച് ഫുഡ് വേണം പിന്നെ ചിക്കൻ കറിയൊക്കെ ഒരിച്ചിരി ഗ്രേവി ചില്ലിയായിട്ടുള്ള നിയർ ബൈ ഹോട്ടലിൽ നിന്നു നല്ല ഹോട്ടലിൽ നിന്നു ഫുഡ്ഡൊക്കെ മേടിക്കണം സ്വിഗ്ഗി അങ്ങനെയൊക്കെയുള്ള നല്ല ഫുഡ് റെക്കമെൻ്റ് ചെയ്യണം പിന്നെ സ്വിഗ്ഗിയുടെ ഫുഡ് ഐറ്റംസൊക്കെ എനിക്കിഷ്ടമാണ് ഓൾ വേസ് ബാംഗ്ലൂർ ടേസ്റ്റ് ഫുഡ്ഡാണെങ്കിലും എല്ലാം നല്ലതാണ് പിന്നെ ബാംഗ്ലൂർ ടേസ്റ്റ് ഫുഡുകളായ മൈസൂർ ഇങ്ങനെയും മൈസൂർ പാക്ക് ഇങ്ങനെ സ്വീറ്റ് ഐറ്റംസെല്ലാം എനിക്ക് വേണ്ടതാണ് പിന്നെ ഈ നമ്മൾ ഹിന്ദിക്കാരുടെയൊക്കെ നോൺ സ്നാക്ക് പോലത്തെ സ്നാക്കായിട്ട് മിക്സ് പിന്നെ അതിൻ്റെ കൂടെ ഡ്രിങ്ക് കേക്ക് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് എനിക്ക് വേണം ഡീറ്റൈൽസായിട്ട് പറഞചഞ്ഞാൽ ബർഗർ പിസ്സ പിന്നെ ബൊറോട്ട ചിക്കൻ ബീഫ് പിന്നെ ചിക്കൻ കറി പിന്നെ അപ്പം വിത്ത് ചപ്പാത്തി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് വേണമായിരുന്നു